ആ നമ്മള് ടാറ്റാ ഡി ടി എച്ച് ഇൻസ്റ്റാള് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വിളിച്ച് ഉണ്ടായിരുന്നില്ലേ ആ അപ്പം ഇൻസ്റ്റാളേഷന് വന്നത് ആണേ അത് ഞാൻ എനിക്ക് ഈ ഭാഗത്തെന്നെ ഒര് രണ്ട് മൂന്ന് ഇൻസ്റ്റാളേഷൻ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അവിടെ ഒക്കെ കയറി അത് ഒക്കെ കഴിഞ്ഞിട്ട് ആണ് നമ്മള് വന്നത് പിന്നെ വീട് കണ്ട് പിടിക്കാൻ ഇത്തിരി ഉള്ളോട്ട് ആയത് കാരണം വീട് കണ്ട് പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടി അതെ ആണല്ലേ ഓക്കെ അപ്പം നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുമോ സർവീസും കാര്യങ്ങളും എങ്ങനെ ആണെന്നൊക്കെ

അതെ അല്ലേ അപ്പോൾ നമുക്ക് ഇതിപ്പം ഇൻസ്റ്റാളേഷന് ചെലവ് വരണത് രണ്ടായിരം രൂപ ആണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഈ കുടയും അതേപോലെ ഇതിനുള്ള വയറും സെറ്റപ്പ് ബോക്സും സെറ്റ് എല്ലാം ആയിട്ട് അപ്പോൾ ഒരു ആ പിന്നെ മാസം എത്രയാണ് റീചാർജ് ചെയ്യണ്ടേന്ന് വല്ല ഐഡിയ ഉണ്ടോ മാസം അതെന്നെ മാസം ഇരുന്നൂറ്റി സംതിംങ് ആണ് എല്ലാ ചാനലും ഇരുന്നൂറ്റമ്പത് രൂപ

ആ എല്ലാ ചാനലും കൂടി വരുന്നത് അപ്പോൾ അത് ചെയ്താൽ മതി ഇത് ഇപ്പോൾ ഇൻസ്റ്റാള് ചെയ്യാൻ ഇങ്ങനെ ആണ് ഇൻസ്റ്റാളേഷന് കാര്യങ്ങള് വരുന്നത് നമുക്ക് ഇപ്പം ഇത് ഇപ്പം എവിടെ ഇൻസ്റ്റാള് ചെയ്യാൻ പറ്റും ഈ സാധനം അപ്പം മുകളില് ഇൻസ്റ്റാള് ചെയ്യാൻ പറ്റുമോ അവിടെ ഈ പട്ടയൊക്കെ ഉണ്ട് അത് വെട്ടി മാറ്റി കളഞ്ഞാൽ അവിടെ ഇൻസ്റ്റാള് ചെയ്യാം നിങ്ങള് ആ എന്നാൽ അപ്പറത്ത് ഇൻസ്റ്റാള് ചെയ്യാം അല്ലേ ശരി അപ്പം അത് അവിടെ സെറ്റ് ചെയ്യാം ഇപ്പം ടി വി എവിടെ വെച്ചിരിക്കണേ ഏത് റൂമ് ഹാളിൽ ആണോ അതെ അല്ലേ അപ്പോൾ ആ രണ്ട് കണക്ഷൻ എടുക്കണ്ടി വരും അല്ലേ ഒന്നിൽ നിന്ന് ഓക്കെ ഒന്ന് രണ്ട് ആക്കാം അപ്പം ടിവീൻ്റെ അവിടേക്ക് ഇപ്പം എത്ര മീറ്റർ ഉണ്ടാകും വയറ് അതിന് അനുസരിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേബിളേ

ആ ആ ഓക്കെ ഓക്കെ അങ്ങനെ ചെയ്യാം അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ

ആ ശരി ഓക്കെ അപ്പം അങ്ങനെ ചെയ്യാം പിന്നെ ഇത് നമുക്ക് ഇൻസ്റ്റാള് ചെയ്ത് കഴിഞ്ഞാൽ ആ നമുക്ക് ചാനല് വരും ചാനല് ഇട്ട് നോക്കിയാൽ മതി പിന്നെ ഇതിൻ്റെ എന്തെങ്കിലും സർവീസിന് ഒരു ഒരു മാസത്തിൻ്റെ ഗ്യാപ്പില് ഒന്ന് കൂടി വിളിക്കണേ അപ്പം ഇതിൻ്റെ ഒന്ന് കറക്റ്റ് സെറ്റ് ആയാലാണ് നമുക്ക് അധികം ചാനല് പിന്നെ അവിടെന്ന് വല്ല മാറ്റം എന്തെങ്കിലും വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് ചാനലധികം കിട്ടുമെന്ന് ഇല്ലെങ്കിൽ ചിലപ്പം സിഗ്നല് കറക്റ്റ് ആയിട്ട് വെരില്ല സാധാരണ അങ്ങന വെരാറില്ല നിങ്ങള് അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ സർവീസ് സെൻ്ററിലേക്ക് വിളിച്ചാൽ അവര് വന്ന് ശരി ആക്കി തരും ഓക്കെ ഓ അതില് വിളിച്ചാൽ കിട്ടും അതില് വിളിക്കുമ്പം ഞങ്ങളിപ്പോ ഒരു മൂന്നാലഞ്ച് പേര് ഉണ്ട് അപ്പോൾ ആരെങ്കിലും വന്ന് അത് ശരി ആക്കി തരും സർവീസ് ചെയ്ത് തരും ഇല്ല ഇല്ല ഇല്ല നമുക്ക് അപ്പോൾ വഴി കണ്ട് പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് ഏറെ ആണ് അതിൻ്റെ ഇപ്പം എന്തായാലും അപ്പോൾ വന്ന് ചെയ്ത് തരും ഓക്കെ

ആ ഓക്കെ ഓക്കെ അപ്പം സെറ്റ് ചെയ്യാം ഒക്കെ വരും ഓക്കെ ഓക്കെ ഓക്കെ ശരി ഓക്കെ താങ്ക്യൂ